ഹലോ ചേട്ടാ ഗ്യാസ് ബുക്കിംഗ് ഏജൻസിയല്യോ ഞാൻ മിഥുനാണേ എൻ്റെ കൺസ്യൂമർ നമ്പർ ഒന്ന് നാല് രണ്ട് ആണേ ഒന്ന് നോക്കണേ ഹ ഞാനാണെങ്കിൽ എൻ്റെ വീട് പു എൻ്റെ അടൂരി അടൂരിലേക്ക് മാറാൻ തീരുമാനി ചിരിക്ക്യാണെ തെങ്ങുംതരയിൽ നിന്ന് ഒരു ഫ്ലാറ്റെടുത്തിട്ടുണ്ട് ആ ഫ്ലാറ്റിലേക്കു മാറാനാണ് അപ്പം എൻ്റെ അഡ്രസ്സ് ചേഞ്ച് പുതിയത് പുതിയതിലോട്ടു ചേഞ്ചാകുകയാണ് അപ്പം ആ ഡെലിവറി അഡ്രസ്സും അതു തന്നെ ഈ പു പുതിയ ഇതായിരിക്കുമോ ഇനിയും തൊട്ടുള്ള ഡെലിവറി അഡ്രസ്സ് അപ്പോൾ എൻ്റെ പുതിയ അഡ്രസ്സും ഇത് കാര്യങ്ങളെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതെല്ലാം അടിയന്തിരമായിട്ട് ഒന്ന് നടപടി ചെയ്തു തരാൻ പറ്റുമോ അതു ഞാൻ നേരിട്ട് വരണമോ അതോ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്നും പറഞ്ഞു തരാൻ പറ്റുമോ